കൽപ്പന ചൗള സുനിത വില്യംസ് രാകേഷ് ശർമ്മ ഇവരൊക്കെ അവരുടെ സ്വന്തം ജീവൻ പണയം വെച്ച് ചെയ്ത വർക്കുകളാണ് എല്ലാം തന്നെ കാരണം അവർക്ക് യാതൊരു തിരിച്ചു വരുമെന്ന ഉറപ്പോ ഒന്നുമില്ലാത്ത ഒരു കാര്യത്തിനാണ് അവർ ഇറങ്ങി പുറപ്പെട്ടത് അവർ നമ്മളുടെ രാജ്യത്തെ പ്രതിനിധീകരിച്ചാണ് പോയത് അപ്പോഴവർ ജീവൻ പോലും ത്യജിക്കാൻ മാത്രം ഉള്ളൊരു അർപ്പണ ബോധമാണ് അവരുടെ പ്രവർത്തനങ്ങളിൽ ഞാൻ കാണുന്നത്